വാർത്താ താരങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ സ്വകാര്യതയെ പരിഹരിക്കാത്ത എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഒരു വാർത്ത വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം മി മീഡിയ ആണല്ലോ ഈ വാർത്തകളെല്ലാം പുറത്ത് വിടുന്നത് മീഡിയക്കാർക്കെപ്പോഴും അവരുടെ അവരുടെതായിട്ടുള്ള ഇത് ഉണ്ടാവുന്നു തൊഴിലവസരങ്ങളെപ്പോഴും വേണം അവർക്കത് നടത്തി മുമ്പോട്ട് പോകണം അടുത്ത നാളെ എന്നൊരു ഒന്ന് ദിവസമുണ്ടെങ്കിൽ അത് അത് നാളത്തെ കാര്യങ്ങൾക്ക് അവർക്കത് ചെയ്ത് ജോലി ചെയ്താലേ അവർക്കത് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം പിന്നെ നമ്മൾ ഇതിപ്പോൾ ഒരു വാർത്ത വിട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞ് കഴിഞ്ഞാൽ എന്തേലുമൊരു ഇൻസിഡൻറ്റ് നടന്നു ഇപ്പം തന്നെ ഒരു ബാങ്ക് കൊള്ളയടിച്ചു കൊള്ളയടിച്ച് കഴിഞ്ഞിട്ട് അത് ആൾക്കാരെ എല്ലാം ഒരു ന്യൂസ് വന്നു ഫ്ലാഷ് ന്യൂസ് ഇറങ്ങിയത് പോലെ ഒരു ബാങ്ക് ആൾക്കാരിതിൻ്റെ പൈസ എല്ലാം എടുത്തോണ്ട് പോയി ഇനി ആർക്കും ഫിക്സഡ് ഡിപ്പോസിറ്റോ എന്തും കൊടുത്തെ ആൾക്കാർക്ക് തിരിച്ചൊന്നും കിട്ടത്തില്ല അങ്ങനെ ഒരു ന്യൂസ് വന്നു അത് പുറത്ത് വന്ന് കഴിയുമ്പോൾ ഒർജിനലായിട്ടുള്ളത് ചിലപ്പം അങ്ങനെ അല്ലായിരിക്കാം കുറെ എന്തേലും ചെറിയ ഇഷ്യൂ കാണും അത് അതിനെ വലിപ്പെടുത്തി പറഞ്ഞിട്ട് അപ്പം എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ പറയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞിട്ട് പ്രതികരിക്കാവു അതിനെപ്പറ്റി കാരണം നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടീട്ടാണ് അപ്പം ഈ വാർത്തേടെ പുറകേ പോയിട്ടോ അല്ലെങ്കിൽ വാർത്തകൾ വെറുതേ വ്യാജവാർത്തകൾ പറഞ്ഞ് വിട്ടിട്ട് അതിൻ്റെ പുറകേ നമ്മൾ സമയം മെനക്കെടുത്താൻ പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ എന്തെങ്കിലും ഒരാളുടടുത്ത് നമ്മൾ ഇപ്പം സാധാരണ ഗതിയിൽ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് കഴിഞ്ഞാൽ ആ ആളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാലയാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളിങ്ങോട്ട് നമ്മടടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് കൊടുക്കുക ഇങ്ങോട്ടും പറഞ്ഞ് കൊടുക്കുക സ്വകാര്യത ഇപ്പം പരിഗണിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോന്ന് എനിക്കറിയത്തില്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ പറ്റി മനസ്സ് കൊണ്ട് ചിന്തിക്കാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്താൽ മതിയാരുന്നു അല്ലെങ്കിൽ കുറച്ച് കൂടെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ ഫലിപ്പിക്കണമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അത് തോന്നിയിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളുടെതായിട്ടുള്ള രീതിയിൽ പോകാൻ നോക്കുക വരുന്ന വാർത്തകളെ അത്പോലെ തന്നെ ഒട്ടും കുറയുകയോ കൂട്ടുകയോ ചെയ്യാതെ തന്നെ നോക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് നമ്മൾ വേണ്ടുന്നത് വേറെ ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പുറകിൽ ആൾക്കാർ വേറെ വന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ വായിന്ന് ഒരു വർത്തമാനം പോയി കഴിഞ്ഞാലത് ശരിയല്ലാന്നുണ്ടെങ്കിലത് ആൾക്കാർ ഒത്തിരി പ്രതികരിക്കാൻ വരുമേ അപ്പം പിന്നെ ഇതിനകത്ത് പിന്നെ വഴക്ക് വലിച്ചോണ്ടൊക്കെ നിൽക്കേണ്ടതായിട്ട് വരും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്നത് സാധാരണ ഗതിയിൽ നമ്മൾ നമ്മൾ എല്ലാ ദിവസവും പേപ്പറൊക്കെ എടുത്ത് വായിച്ച് നോക്കുമ്പോഴും ഇപ്പം എല്ലാ ന്യൂസുകളും പല ആൾക്കാരും മരിച്ചതായിട്ടും അല്ലെങ്കിൽ പല അത്ഭുത കാര്യങ്ങൾ ചെയ്തതായിട്ടെല്ലാം വായിക്കാനെടുക്കാനൊക്കെ കഴിയും അത് ഒർജിനലാണോ എന്നുള്ളതൊക്കെ നമ്മൾക്ക് ചിന്തിച്ച് നോക്കീട്ട് അത് എന്നിട്ട് വേണം അതിനെപ്പറ്റി പ്രതികരിക്കാൻ വേറേ ഞാൻ നോക്കീട്ട് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ അപ്പം പിന്നെ ഞാനടുത്തതിലേക്ക് കടക്കാം